അന്ധവിശ്വാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുണ്ട് ഇപ്പം ഉദാഹരണത്തിന് പറയുമ്പം മ് എവിടേലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ട് ഇറങ്ങരുത് നേരെ നോക്കി പോകണം നല്ല കാര്യങ്ങൾക്കൊക്കെ പോകുമ്പം അങ്ങനെയൊക്കെ പറയും പിന്നേന്ന് പറയുമ്പം ഈ കല്യാണം നടക്കണമെങ്കിൽ അങ്ങനെ നല്ല സമയം വേണം അങ്ങനെ രാഹുകാലം അങ്ങനെയൊക്കെ കുറെ പറയും ഇപ്പം ഉദാഹരണത്തിന് എന്ന് പറയുമ്പം എൻ്റെ വീടിൻ്റെ അവിടെ ഒരു കാവുണ്ട് ആ കാവിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു വീടുണ്ട് ആ വീട്ടുകാരോട് പറഞ്ഞിരിക്കുന്ന എന്താ ഇത്ര ആ കാവിനോട് ചേർന്ന് വീട് ഉള്ളതുകൊണ്ട് എന്തോ അവർക്ക് എന്തോ ദോഷമാണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അവര് കുറെ മണ്ണിടും പിന്നെ മതില് കെട്ടും മരം വയ്ക്കും അങ്ങനെയൊക്കെ കുറെ ചെയ്തു പിന്നെ എവിടെലും ഒക്കെ പോകുമ്പം നമ്മള് ഇങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ വണ്ടിക്ക് ഇങ്ങനെ എന്തേലുമൊക്കെ പ്രോബ്ലം വരുമ്പളും പിന്നെ ഇപ്പം എന്താ പറയുക ഇങ്ങനെ വണ്ടിൻ്റെ ഫ്രണ്ടിൽ എന്തേലും പട്ടി ചാടുവോ അങ്ങനെ എന്തേലുമൊക്കെ ചാടിലെ പൂച്ച അങ്ങനെയൊക്കെ ചാടുന്നത് അങ്ങനെ ഉള്ളെന്നും കുറെ പറയും പിന്നെ രാഹുകാലം അങ്ങനെ എന്തൊക്കെയോ നോക്കിയിട്ടൊക്കെ എവിടേലും പോകാൻ നേരത്ത് ഇറങ്ങാൻ പാടുള്ളൂ അങ്ങനെ കുറെ കേസൊക്കെ പറഞ്ഞിട്ടുള്ള കേട്ടിട്ട് ഒക്കെ ഉണ്ട് ഇപ്പം എന്ന് പറയുമ്പം നമ്മൾ ഇപ്പം എന്തേലും നല്ല കാര്യത്തിന് ഇറങ്ങുവാണെങ്കിൽ സമയം നോക്കണം കാലം നോക്കണം അങ്ങനെയൊക്കെ പറയും എവിടേലും പോവുമ്പം ആണെങ്കിലും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്